അ ഞങ്ങള് ഉച്ചക്കും നൈറ്റും എല്ലാം കൊടുക്കാറുണ്ട് പിടിയും കോഴിയും ഒരു തനി നാടൻ സ്റ്റൈലിൽ ആണ് ചെയ്യുന്നത് ഈ അരിപൊടി നന്നായി വറുത്ത് തേങ്ങാ പാലിൽ കുഴച്ച് ഉരുട്ട് ബോൾ ആക്കി പിന്നെ തേങ്ങാപ്പാല് ജീരകം ചെറിയ ഉള്ളി എല്ലാം ചതച്ച് ഇട്ട് അതിലിട്ട് ഇങ്ങനെ വാട്ടിയെടുത്ത് ഉണ്ടാക്കുന്നതാണ് കറക്റ്റ് ഒരു നാടൻ ടേസ്റ്റ് ആണ് ഒരു ജീരകത്തിൻറ്റെയും ഒരു തനി ഒരു ക്രിസ്ത്യൻ വീട്ടിലൊക്കെ ഉള്ള പോലത്തെ ഒരു ടേസ്റ്റാണ് ഉണ്ടാവാറ് ഉണ്ടാവുന്നത് പിന്നെ അതിൻ്റെ കൂടെ വറുത്തരച്ച ചിക്കൻ കറിയും ചിക്കൻ തേങ്ങയും മല്ലി മുളകും എല്ലാം വറുത്ത് നമ്മൾ പൊടിയൊന്നും യൂസ് ചെയ്യാതെ മഞ്ഞ പൊടി മാത്രമെ പൊടിയായിട്ട് യൂസ് ചെയ്യുന്നുള്ളു ബാക്കി എല്ലാം സ്പൈസസ് ഒക്കെ നമ്മൾ വറുത്ത് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതെ തേങ്ങാ വറുത്തരച്ചിട്ടാണ് ഞങ്ങളെ റസ്റ്ററൻറ്റില് ഞങ്ങൾ കൊടുക്കുന്നത് റേറ്റ് ഒരു ഫുള്ളിനൊക്കെ ആണെങ്കിൽ ഒരു നാന്നൂറ് രൂപ വരുന്നുണ്ട് നമുക്ക് അതിൻ്റെ പ്രെപറേഷൻ ക്വാണ്ടിറ്റി അധികം അത്യാവശ്യം ഉണ്ട് കെട്ടോ ഒരു ക്വാണ്ടിറ്റി തന്നെ ഒരു അത്യാവശ്യം ഒരു നാല് പേർക്കൊക്കെ നന്നായിട്ട് നന്നായിട്ട് കഴിക്കാം നാല് പേർക്കൊക്കെ അതെ നന്നായിട്ട്തന്നെ കഴിക്കാം അധികം കഴിക്കാത്തവരാണെങ്കിൽ ഒരു അഞ്ച് ആറോ പേർക്കോ കഴിക്കാം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്

സെപ്പറേറ്റ് ഞങ്ങൾ കൊടുക്കാറുണ്ട് ഇത് രണ്ടും കൂടി ഉള്ള റേറ്റ് ആണ് പറഞ്ഞത് പിടിയും കോഴിയും ആയിട്ടുള്ള റേറ്റ് അ ഹാഫ് മതിയാവും രണ്ട് പേർക്കൊക്കെ അ യ പത്ത് പേർക്കാ ഓക്കെ നിങ്ങള് പിന്നെ ഡെലിവറി ചെയ്ത് തരണമെന്നാണോ അതായത് ഹോം ഡെലിവറി ആണോ

ഓ അടുത്താണല്ലേ വീട്ടിൽ എത്തിച്ച് തരണം ഓക്കെ പിന്നെ എപ്പഴത്തേക്കാണ് വേണ്ടത് നൈറ്റ് സമയം നാല് മണി ഒക്കെ ആകുമ്പോൾ